നമുക്കെല്ലാവര്ക്കും അറിയാം നമ്മുടെ ഗ്രാമ പ്രദേശങ്ങളിൽ സര്ക്കാര് ഭരണങ്ങളിൽ കണ്ട് വരുന്ന ഒരു മോശമായ കാര്യം എന്ന് പറയുന്നത് റോഡിന്റെ അവസ്ഥയാണ് നല്ലപോലെ വണ്ടിയോടിച്ച് പോവാനായിട്ടുള്ള സാഹചര്യം പോലും നമുക്കില്ല ഒരു മഴ വന്നാൽ തന്നെ നമുക്കെല്ലാവര്ക്കും അറിയാം റോഡിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ശരിക്കുവമൊരു മഴ വന്നാൽ തന്നെ തീര്ന്ന് റോഡിന്റെ അവസ്ഥ അത്പോലെ ഇ നല്ല റോഡൊന്നും ഇല്ലെങ്കിൽ എല്ലാവര്ക്കും അറിയാം നല്ല റോഡുകളൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളൊക്കെ വന്ന് പോകും ഇങ്ങനെ വിണ്ടും ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ റോഡുകളൊക്കെയാണ് ഇപ്പം കൂടുതലും കണ്ട് വരുന്നത് ഈ മഴക്കാലത്ത് മഴക്കാലം വന്ന്പോയിക്കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ അത് ശരിയാക്കാനാണെങ്കിൽ സര്ക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും കണ്ട് വരുന്നില്ല പിന്നെ പറയാനാണെങ്കിൽ ഈ മലിനീകരണത്തിന്റെ കാര്യങ്ങളാണ് ആള്ക്കാർ പൊതുസ്ഥലത്തും റോഡ്കളിലും അവിടെ ഇവിടയെക്കെയാണീ മലിനീകരണങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് അത് നല്ല ഒരു രീതിക്ക് പ്രോപ്പറായിട്ട് മെയിന്റെയിന് ചെയ്ത് കൊണ്ട് പോവാനായിട്ടുള്ള സാഹചര്യം പോലും സര്ക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല പിന്നെ പറയാനാണെങ്കിൽ ഈ രാഷ്ട്രീയപരമായ നേതാക്കളൊക്കെ ആണ് ഉള് പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് അവരൊക്കെ ഈ പാര്ട്ടിയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് വഴക്കും പിന്നെ അക് അക്രമങ്ങളും എല്ലാം നടന്ന് വരുന്നത് നമ്മളിപ്പം കാണുന്നുണ്ട് ഇപ്പം കൂടുതലും ഈ പാര്ട്ടിയുടെ ഭാഗത്തുന്നൊക്കെയാണ് കൂടുതല് അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ട് വരണത് കൊല്ലും കൊലയായിട്ടും ഒരുപാട് നമ്മളിപ്പം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെയാണെങ്കിൽ ഈ പൊതു ആശൂപത്രി പൊതു ആശൂപത്രിലെക്കെ എന്താ കറക്റ്റായിട്ട് അവർക്ക് വേണ്ട ശുശ്രൂഷ അതുപോലെ തന്നെ അവർക്ക് വേണ്ട നല്ല മുന്കരുതലുകൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇതൊന്നും കൊടുക്കാറില്ല പിന്നെ പറയാനാണെങ്കിൽ ഈ ഗ്രാമ പ്രദേശങ്ങളിൽ ഗ്രാമ പ്രദേശങ്ങളിൽ ആള് താമസിക്കുന്നവര്ക്കാണെങ്കിപ്പോലും ഇപ്പെന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ട മുന്കരുതലുകളും അതുപോലെ തന്നെ അവര്ക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഒന്നും തന്നെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ട് വരുന്ന കാര്യങ്ങളക്കെ